ഹലോ ആ യേശുദാസ് അല്ലേ യേശുദാസ് അല്ലേ ആ അപ്പം അതേ നമ്മുടെ കമ്പനിയുടെ ഒരു പിന്നെ നിങ്ങളുടെ സ്റ്റാഫ് എല്ലാം കൂടെ വിളിച്ചു കൂട്ടി അപ്പം നമ്മൾക്ക് ഒത്തിരി ആ അതെ അതെ അപ്പം അതിന് ഒരു ഒരു നമക്ക് ഒരു നിങ്ങടെ കീഴിലുള്ള എല്ലാർക്കുവൊര് ട്രേയ്നിങ്ങ് കൊടുക്കണം അപ്പം അതിന് ഒരൂ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് എല്ലാം കൊണ്ടും അതെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ച് അവധിയാണല്ലോ ആ ഇരുപത് ഇരുപത്തി അഞ്ചാന്തി അവധിയാവുമ്പോൾ അവർക്ക് ആ പിന്നെ നമുക്ക് അവിടെ ഒരു ട്രേയ്നിങ്ങ് നടത്താം നമുക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ നമുക്ക് അറേയ്ഞ്ച് ചെയ്യാം ആ പക്ഷേ നമ്മുടെ ആ സ്റ്റാഫുകൾ ഇപ്പം എൺപത്തി അഞ്ച് പേരല്ലേ മൊത്തം എല്ലാ കമ്പനികളിലുമുള്ളത് ആ അപ്പം ആ ആ എൺപത്തി അഞ്ചു പേരും ഒരാൾ പോലും ലീവ് എടുക്കാതിരിക്കാൻ ലീവെടുക്കാതെ ശ്രദ്ധിക്കണം കാര്യം ഇവർ വേറെ നമ്മൾ പുറത്തു നിന്ന് ഒരു വേറെ ഒരു ഹൈട്ടെക്ക് ആൾക്കാരാണ് ക്ലാസ്സെടുക്കാൻ വരുന്ന അവരേ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര എക്സ്പ്പെൻസീവ് ആണ് അവരെ നമുക്ക് അവരുടെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചാന്തീയാ അല്ലെങ്കിൽ നമുക്ക് ഈ വർഷം പിന്നെ നടത്താൻ പറ്റത്തില്ല

അതെ അതെ ടൈമ് കഴിഞ്ഞു ആരൊക്കെയാണ് മൂന്നു പേർ അവധി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചോദിക്കുന്നതാണോ ട്രെയ്നിങ്ങിന്

അല്ല നമ്മളുടെ അവരുടെ അടുത്ത് പറ കാര്യമെന്താണെന്നു വച്ചാൽ ഇങ്ങനെ ഇത്

അല്ല അത് വേറെ ഒരു കാര്യമെന്നു വച്ചു കഴിഞ്ഞാൽ ഇവർ അല്ല ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ ഡേറ്റ് കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ് അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ പുറത്തു നിന്നൊരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അപ്പം ഈ മൂന്ന് മൂന്ന് മൂന്ന് പേർ എത്ര ദിവസം മുമ്പാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഇത് വിളിച്ചപ്പഴേ വിളി വിളിച്ചപ്പഴല്ലേ യേശുദാസ് പറയുന്നത് ഇന്ന കാര്യങ്ങളുണ്ടെന്നുള്ളത് അപ്പോൾ ഇതെല്ലം എൻ്റെ ഇതെല്ലാ എൻ്റെ അടുത്ത് നേരത്തെ അറിയിക്കേണ്ടതല്ലേ അപ്പം നമ്മൾ ഇത് അതാണ് നമുക്ക് ഒരു കോഡിനേഷൻ ഇല്ല എന്നുള്ളത് യേശുദാസല്ലേ ഐൻ്റെ ഏറ്റവും വലിയ ഹെഡ് ഹെഡ്ഡ് അപ്പോൾ അപ്പം ഇങ്ങനെയുള്ള സമയത്ത് അത് ആ ആ അല്ല അവരുമായിട്ട് സംസാരിച്ചു കാര്യം എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിന് അനുസരിച്ചിട്ട് ഈ വർഷം തന്നെ ഒരു ട്രേയ്നിങ്ങ് നടത്തണം അപ്പം ഞാൻ ആലോചുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രൈയിനിങ്ങെന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ നമ്മൾ ആ പിന്നേ സ്റ്റാൻ്റ് അറ്റ് ഈസ്സ് പിന്നേ അറ്റെൻഷൻ അല്ല കാര്യം നമുക്ക് അത് അങ്ങനെയാണ് നമുക്ക് പുതിയ പുതിയ ടെക്നോളജി ഒത്തിരി വന്നിട്ടുണ്ടല്ലോ അത് അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ അപ്പം എന്തായാലും എന്തായാലും എന്നേ അവരുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് എന്നെ അറിയിക്ക് കേട്ടോ ഓക്കേ ഓക്കേ റൈറ്റ് റൈറ്റ്